ഇക്കാലത്ത് പൊതുവെ എല്ലാവരും ടു വീലേസക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാലും പ്രാദേശികമായ ഗതാഗത സംവിധാനങ്ങളും കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ മെട്രോ സംവിധാനമുണ്ട് അതാകുമ്പോൾ ആലുവ എറണാകുളം റൂട്ടില് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് അത് അതുപോലെ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകള് അതൊക്കെ ഉണ്ട് പ്രൈവറ്റ് ബസാകുമ്പോൾ നമ്മള് ടൗൺ അല്ലാതെ അല്ലാത്ത സ്റ്റോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ സൗകര്യമുണ്ട് അതൊന്നും ഇപ്പം നമുക്ക് ട്രെയിനിന് പോകാൻ പറ്റില്ല അതിനെ നമുക്ക് ബസ്സിനെ ആശ്രയിക്കേണ്ടി വരും അതുമാതിരി വിദ്യാർഥികൾക്ക് പോകാൻ അതിനൊക്കെ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരും ദീർഘദൂര യാത്ര ബസ്സിലാണെങ്കില് കെ എസ് ആർ ടി സി ഉണ്ട് അതുപോലെ സാധാ ട്രെയിനുകള് മെമു ട്രെയിനുകള് ഉണ്ട് ലോക്കലായിട്ടുള്ള പാസഞ്ചേസ് ഉണ്ട് അതൊക്കെ കുറച്ച് ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും വന്ന് പോകാനുള്ള സൗകര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പൊതുവെ എല്ലാവരും ടു വീലേസക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാലും കുറച്ചും കൂടെ നമ്മുടെ ഗതാഗതത്തിലെ തിരക്ക് കുറയ്ക്കാനും എല്ലാത്തിനും ഒരു സഹായകരമാണ് ഈ ട്രെയിനും ബസ്സും ഒക്കെ നമുക്ക് അവൈലബിളാട്ട് ഉള്ളത്